നമ്മുടെ ഒഴിവു സമയങ്ങളിൽ നമ്മള് ഓരോ കളികളിൽ ഏർപ്പെടുന്നതുകൊണ്ടുതന്നെ നമുക്ക് അതിനോടുള്ളൊരു ഒരു ഇഷ്ടവും അതുപോലെ നമ്മുടെ ഒഴിവു സമയത്ത് നമ്മൾ മറ്റ് മറ്റു പല പ്രശനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മള് വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മാനസികമായി നമ്മൾ വീക്കാണെങ്കിൽ ഓരോ കളികളിൽ ഏർപ്പെടുമ്പോളും നമുക്ക് ആ മാനസികമായ ഒരവസ്ഥയിൽ നിന്നും നമ്മള് ഒന്നും കൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കെന്തെങ്കിലും ഒരു സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലൊരു എന്തെങ്കിലൊരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്കത് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും എന്നാൽ ഓരോ കളി ഇപ്പോൾ ഷട്ടിൽ ആണെങ്കിലും ഫുട്ബോൾ അല്ലെങ്കിലൊരു വീഡിയോ ഗെയിം ആണെങ്കിൽപ്പോലും ഇപ്പോൾ നമ്മള് മറ്റുള്ളവരുടെ കൂടെ ഇടപഴകിയും കളികളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിൽനിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു തലയിൽ നിന്നും അത് നമുക്ക് മറന്ന് പോകും അപ്പോൾ നമുക്കത് ശാരീരി ഇപ്പോൾ മനസ് നന്നായാൽത്തന്നെ ശരീരവും നമുക്ക് നന്നാക്കാം ഇപ്പം മനസ് നമ്മള് വീക്കാണെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയില്ല എന്നാൽ മനസ് നന്നാണെങ്കിൽ ശരീരം നമ്മള് ഒരുപാട് മെച്ച പ്പെട്ടതും നമുക്ക് കുറച്ചും കൂടെ ഊർജ്ജം കൈവരിച്ചതുപോലെയും ഉണ്ടാവും അപ്പോൾ കളികള് നമ്മളെ മറ്റൊരു മറ്റൊരു തലത്തിലാണ് എത്തിക്കുന്നത്